ഹലോ സ്വിഗി അല്ലേ ഞാൻ കുറച്ച് മുന്പ് ഒരു ബിരിയാണി ഓര്ഡര് ചെയ്തിരുന്നു അപ്പോൾ എനിക്കതിന്റെ ആ അതിന്റെ കൂടെ കുറച്ച് മല മധുര പലഹാരങ്ങള് കൂടെ ഉള്പ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് അ അതുകൂടെ ഒന്ന് ഉള്പ്പെടുത്താവോ എനിക്ക് അവിടെ ലഭ്യമായിട്ടുള്ള മധുര പലഹാരങ്ങള് എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞുതരാമോ അ ആ എനിക്ക് ഐസ് ക്രീം ഒരു ഐസ് ക്രീമും അതുപോലെ ഹല്വ ഡേട്ട്സിന്റെ ഹല്വ മതി ആ അതുപോലെ ഒരു കേക്ക് കൂടെ വൈറ്റ് ഫോറെസ്റ്റിന്റെ ഒരു കേക്ക് കൂടെ അതിന്റെ കൂടെ ഒന്നുള്പ്പെടുത്തി ആ എത്രയും വേഗം തന്നെ ഒന്നെത്തിക്കുക